നമസ്കാരം എനിക്കൊര് ഫോർമൽ ഷർട്ട് ഓൺലൈൻ വാങ്ങേണ്ടത് ഉണ്ട് പക്ഷേ അത് എനിക്കിഷ്ടപ്പെട്ട നിറത്തിലും വലിപ്പത്തിലും ലഭ്യമാണോ എന്ന് ഉറപ്പില്ല അതിനായാണ് ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് എനിക്ക് സ്മോൾ സൈസിൽ നീല നിറത്തിലുള്ള ഒരു നൈലോൺ ഷർട്ടാണ് ആവശ്യം റെയ്മണ്ട് കമ്പനിയുടെ ഷർട്ടാണ് ഞാൻ നോക്കുന്നത് ഫുൾ സ്ലീവ് വരുന്ന ക്രോപ്പ് ടൈപ്പ് ഷർട്ടാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ ലഭ്യത മീശോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ ലഭ്യമാണോ എന്നറിയാനും ലഭ്യമാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ദയവു ചെയ്ത് എന്നെ അറിയിക്കാനും ഞാൻ അപേക്ഷിക്കുന്നു ഒരു ഇരുന്നൂറിനും ന്നാനൂറിനും ഇടയ്ക്ക് വില വരുന്ന ഒരു ഷർട്ടാണ് ഞാൻ നോക്കുന്നത് അതും അടുത്താഴ്ച അതായത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഈ ഇതൊക്കെ കണക്കിലെടുത്തു കൊണ്ട് നിങ്ങളുടെ അറിവ് ഉപയോഗിച്ച് ഈ ഷർട്ടിൻ്റെ ലഭ്യത എന്നെ അറിയിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു